അതേ ഞാൻ എയ്ഞ്ചലെയാണ് കറക്റ്റ് ലൊക്കേഷനൊന്ന് പറയുന്നത് ചാലാപ്പിള്ളി വരുക എന്നിട്ട് അവിടുന്ന് മേത്താനം ഉണ്ട് മേത്താനത്ത് വന്നിട്ട് റൈറ്റ് തിരിയുക റൈറ്റ് തിരിയുമ്പം നേരെ താഴോട്ട് വരുമ്പം ഒരു കത്തോലിക്ക പള്ളിയുണ്ട് വെട്ടിക്കൽ പുരയിടം സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് അതിന് മുമ്പ് ഒരു കോൺക്രീറ്റിട്ട വഴി കയറി വരുമ്പം വീട് നമ്പർ നൂറ്റി പതിമൂന്നാണ് ഞാൻ ലൊക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്തേലും ഡൗട്ടുണ്ടെങ്കിൽ യു ക്യാൻ കോൾ മി